പൊതുവേ ഇപ്പോൾ എല്ലാ മേഖലയിലും പുതിയ പുതിയ ടെക്നോളജികള് വരുന്നുണ്ട് അതുപോലെ കൃഷിക്കാണെങ്കിലും ഏത് ഇതിലാണെങ്കിലും പുതിയ ടെക്നോളജിയുടെ എല്ലാ വഴികളും ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങള് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മള് പണ്ട് ഉപയോഗിച്ച് കൊയ്യാൻ ആൾക്കാരെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പമെന്ന് പറയുമ്പോൾ മെഷീൻ വരും മെഷീൻ വന്നു കൊയ്ത് കറക്ടായിട്ട് അതിൻറ്റെ നെല്ലും കാര്യങ്ങളുമൊക്കെ നേരെ കയ്യോടെ ചാക്കിലാക്കുക അങ്ങനത്തെ പരിപാടി ഒക്കേ പറ്റും അതുപോലെ വൈക്കോൽ നേരെ റൗണ്ട് ആക്കുക മുമ്പെന്ന് പറഞ്ഞാൽ കൊയ്ത്തു കഴിഞ്ഞ് പിന്നേ രണ്ടാമത് അത് തല്ലാൻ നിൽക്കണം അങ്ങനേ കാറ്റത്ത് ഇടാൻ അങ്ങനത്തേ രണ്ടുമൂന്നു പരിപാടി ഇപ്പോൾ അങ്ങനെനൊന്നുമില്ല നേരെ മെഷീൻ കൊയ്ത് നേരെ കറക്റ്റായിട്ട് നമുക്ക് നെല്ല് ചാക്കിലാക്കാൻ പറ്റും അതുപോലെതന്നേ നടാന് നടാനും മെഷീനുണ്ട് പിന്നേ അതിന് പൊടിയിടാൻ എല്ലാത്തിനും മെഷീൻ കാര്യങ്ങളൊക്കേ ഉണ്ട് ഇപ്പോൾ നമ്മള് പച്ചക്കറി വെക്കാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിന് മെഷിൻ കറക്ടായിട്ട് അതിൻറ്റെ ഗ്യാപ്പ് ഒക്കേ കറക്റ്റ് ആയിട്ട് കൃത്യമായ രീതിയില് നമുക്ക് വെയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് മെഷീനും കാര്യങ്ങളൊക്കേ ഉണ്ട് പിന്നേ വേറേ പുതിയ നയം അല്ലെങ്കിൽ ഉപായം എന്ന് പറയുമ്പോൾ നമ്മള് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൂട് ക്ര ക്രമീകരിച്ചു കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഇപ്പോൾ എത്രയാണോ ഒരു കൃഷിക്ക് പച്ചക്കറി ആണെങ്കിൽ അതേ പോലെ നമ്മളിപ്പോൾ ഫ്രൂട്സ് അതുപോലേ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രയാണോ ചൂട് ക്രമീകരിക്കേണ്ടത് അതിൻറ്റെ പുതിയതായി ന്യൂന നൂതനമായ ടെക്നോളജികളുണ്ട് പിന്നേ അങ്ങനേ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഇപ്പം ഏത് ടൈപ്പ് കൃഷി ആണെങ്കിലും അതിനെല്ലാം വേണ്ടരീതിയില് എത്ര ഏതിന് ഏതു മണ്ണിന് ഏതു വളമാണ് കൊടുക്കേണ്ടത് ഏതാണ് അവിടെ കുറവ് അത് കണ്ടുപിടിക്കാൻ പറ്റും എത്ര വെള്ളം കൊടുക്കണം ഇതിന് എത്ര ചൂട് കൊടുക്കണം അങ്ങനത്തേ എല്ലാത്തിനും മെഷീനും കാര്യങ്ങളൊക്കെയുണ്ട് നമുക്കിപ്പോൾ ഇത് പൊതുവേ നമ്മള് ഓൺലൈൻ സൈറ്റില് ഇതില് ഓൺലൈനില് സെർച്ച് ചെയ്തു നോക്കണമെന്ന് പറയുമ്പോൾ അവിടുന്ന് നമുക്ക് കുറേ താ കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നേ ഇപ്പോൾ യൂട്യൂബില് അതുപോലേ ഓൺലൈൻ മീഡിയകളില് സോഷ്യൽ മീഡിയകളിലൊക്കേ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കേ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവിടുന്നൊക്കേ നമുക്ക് കുറേയധികം കാര്യങ്ങള് സാധാ എങ്ങനെയാണ് കൃഷിയും കാര്യങ്ങളൊക്കേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു കൃഷിക്കാരൻ അതില് എന്തെങ്കിലും ഒരു പുതിയ കൃഷി തുടങ്ങാൻ പോകുവാണ് അപ്പോൾ അതിൻറ്റെ എന്തെങ്കിലും ഐഡിയാസ് നമ്മളൊന്നങ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവിടെ അതില് കിട്ടും അതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മള് ഓൺലൈനായിട്ട് നോക്കിയാലും കുറേ ടെക്നോളജീം കാര്യങ്ങളൊക്കേ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കേ അതിൽ നിന്ന് ഓൺലൈനില് അവൈലബിൾ ആണ്